ആ ഹലോ എനിക്കെ ഈ ദിവസങ്ങളിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു അപ്പം വിളിച്ചപ്പോൾ വളരെ എളുപ്പത്തിലെനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ എന്നോട് അവർ ഏജൻ്റുമാർ പെരുമാറുമൊക്കെ ചെയ്തു വളരെ എളുപ്പമായിപ്പോയി ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ അധികം പെട്ടെന്നു കാര്യങ്ങൾ നടന്നു കിട്ടി അതു പോലെ തന്നെ അതു വളരെ നന്നായിട്ടവർ വന്ന് കണക്റ്റ് ചെയ്യുകയും പഴയ സിലിണ്ടറെടുത്തു കൊണ്ട് പോകുകയൊക്കെ ചെയ്തു വളരെ എളുപ്പം ഉള്ളൊരു സർവ്വീസായിരുന്നു പിന്നെ ഇതു പോലെ തന്നെ ആ ബാക്കിയുള്ളവർ ഇതു പോലെ തന്നെ സർവ്വീസ് തന്നാൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം കൂടെയുണ്ട് മുൻകാലങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് മികച്ച സർവ്വീസാണ് എനിക്ക് കിട്ടിയത് അപ്പം ബുക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു കാലതാമസം ഒക്കെ പണ്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി അതൊക്കെ വളരെ കൃത്യമായിട്ടവർ വന്നു തരികയും നല്ല സർവ്വീസായിരുന്നു അതു വളരെ തടസ്സരഹിതമായിട്ടിങ്ങനെ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലൊക്കെ ഇങ്ങനെ ഇടപെടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഇതൊരവശ്യ സർവ്വീസാണല്ലോ അപ്പം അങ്ങനെ വന്ന് അതു തരുന്നത് നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് നല്ല കാര്യമാണ് അതിന് പ്രത്യേകം അഭിനന്ദിക്കണം കേട്ടോ നല്ല സർവ്വീസായിരുന്നു നല്ല ഇടപെടലായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ വളരെ നന്നായിട്ട് പെരുമാറി അതൊക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്തു അപ്പം ആ ഏജൻറ്റിനെയും അതു കൊണ്ടു വന്നു തന്ന ആ ടെക്നീഷ്യനെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും മുന്നോട്ടും നിങ്ങളുടെ ഏജൻസിയിൽ നിന്നു തന്നെ ഗ്യാസിൻ്റെ കണക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സുഹൃത്തുകൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഈ ഏജൻസി തന്നെ റെക്കമൻ്റ് ചെയ്യും വളരെ നല്ല സർവ്വീസ് തന്ന ഗ്യാസ് ഏജൻസി നിങ്ങൾക്ക് വളരെ അധികം നന്ദി